ഞാൻ സാധാരണയായി ചാർട്ട് പേപ്പറിൽ ആണ് ചിത്രം വരയ്ക്കാറുള്ളത് ക്യാൻവാസ് ജലച്ഛായ ചാർട്ട് പേപ്പർ തുടങ്ങിയവയിൽ എനിക്ക് ചിത്രം വരയ്ക്കാൻ അറിയാ അറിയില്ല അത്കൊണ്ട് തന്നെ ഞാൻ ചാർട്ട് പേപ്പർ മാത്രമേ സെലക്ട് ചെയ്യാറുള്ളൂ ചാർട്ട് പേപ്പർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് വൃത്തിയായി മടക്കി വയ്ക്കാനും സാധിക്കും ചാർട്ട് പേപ്പർ ആദ്യം ഔട്ലയ്ൻ വരച്ച് അതില് തന്നെ അതില് കളറ് കൊടുത്ത് അത് ഭംഗിയായി ഞാൻ ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കാറാണ് പതിവ് അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് ക്യാൻവാസിലും ജലഛായ ചാർട്ട് പേപ്പറിലും എനിക്ക് വരയ്ക്കാൻ അറിയില്ലാത്തത് കൊണ്ട് ഞാനത് ഉപയോഗിക്കാറില്ല